ഇടുക്കി ജില്ലയിൽ ആദ്യമായി ചില പ്രാദേശിക വിദ്യാഭ്യാസ അല്ലെങ്കിൽ പഠനാവസരങ്ങൾ അത് പി എസ് സി പരമായും എൻട്രൻസ് തുടങ്ങിയ ടീച്ചിങ്ങ് പരമായും ഒരുപാട് പ്രാദേശിക വിദ്യാഭ്യാസ പഠനാവസരങ്ങൾ ലഭിക്കാനായിട്ട് ഇവിടെയും ഇവിടെയും അവസരം ലഭിച്ചിട്ടുണ്ട് ഈ അവസരങ്ങൾ ജില്ലയുടെ വികാസത്തിനും മൊത്തത്തിലുള്ള ഒരു വളർച്ചയ്ക്കും വളരെയേറെ സഹായകമായിട്ടുണ്ട് ജില്ല കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ ആയി നമ്മുടെ ഓരോ പഠന പഠനരീതികളും മുന്നോട്ടു വെക്കുന്നത് ഇവിടുത്തെ വള ഇടുക്കി ജില്ലയുടെ വളർച്ചയ്ക്ക് വളരെ അധികം സഹായപ്പെട്ടിട്ടുണ്ട് സമൂഹത്തിലുള്ള പ്രശസ്തമായ രണ്ട് കോച്ചിങ് സെൻറ്ററുകളാണ് എ ഐ എം എസ് കോച്ചിങ് സെൻറ്ററും നവോദയ കോച്ചിങ് സെൻറ്ററും ഇത് കുട്ടികൾക്ക് ഒരുപാട് പഠന മേ അത് പഠിത്തത്തിൽ കൂടുതലും മൂന്നോട്ടു കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിൽ കുറെ വികസനം സംഭവിക്കാനും ഇങ്ങനെ ഉള്ള സ്ഥാപനങ്ങൾ വളരെ അധികം പങ്ക് വഹിച്ചിട്ടുണ്ട്